ആ ഏട്ടാ ഞാൻ വിളിച്ചതേ നമുക്കൊരു സ്ട്രോങ് ചായ വേണമായിരുന്നു പോരാതെ ഇച്ചിരി ബ്രഡും ഏ ഓംലെറ്റ് ഇല്ലേ മുട്ട ഓംലെറ്റ് ബ്രഡും അത് വേണമായിരുന്നു നമുക്കത് എങ്ങനെയാ നല്ല രീതിയിൽ തരാൻ പറ്റുമോ എങ്ങനെയാ അത് അറിയാനായിരുന്നു വിളിച്ചത് അത് നമ്മൾ വരാം ഡേ കുറച്ച് നേരം കൂടെ കഴിയുമ്പത്തേന് വരാം അത് എന്നതാ ഓംലെറ്റ് അതോ ജാം എങ്ങനെയാ നിങ്ങൾ ബ്രഡ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ ഈ ഞങ്ങൾ ഉദേശിക്കുന്നത് ഒരു സംശയം കൂടെ ഞാൻ ചോദിക്കാം ഈ മിഷ്യൻ ചായ ഇല്ലേ മിഷ്യൻ രീതി ഇതിനകത്തെ അതിനകത്ത് ചായ തരാറുണ്ട് ആ ചായയാണോ അതോ നമ്മുടെ നാട്ടിലെ നിങ്ങളിങ്ങനെ വീശിയടിക്കുന്ന ആ ചായയാണ് ഞാൻ എനിക്ക് പലപ്പോഴും താല്പര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ആ എങ്ങനെ ആ മറ്റെ ഈ വീശി അറിയാമല്ലോ ഇവിടെ പിടികിട്ടിയല്ലോ ആ അപ്പോൾ മിഷ്യൻ ചായ നമുക്ക് അ അ ആ ആ അതുതന്നെ ആ

അല്ല അപ്പോൾ ഒരു ഓക്കെ അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുട്ട അണ്ട അത് അത് നമ്മുടെ നാടൻ മുട്ടയാണോ അതോ ബ്രോയിലെർ വരുന്ന തമിഴ്നാട്ടിൽനിന്നോ അവിടുന്നോ മറ്റോ ബ്രോയിലെർ മറ്റെ മുട്ടയാണോ എന്ന് അറിയാനായിട്ടാ എനിക്ക് സംശയമുണ്ട് നാടൻ മുട്ടയാണോ അപ്പോൾ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ നമ്മൾ ഈ ഓംലെറ്റിന് പകരം ഈ കുരുമുളക് ഒക്കെ ഇട്ട് ബുൾസൈ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ ഇപ്പോൾ കുരുമുളക് ഉപയോഗിക്കുന്നുണ്ടോ ഇതിനകത്ത്

ഓക്കെ എന്നാൽ ശരി താങ്ക് യൂ ഞാൻ വന്നോളാം കേട്ടോ ഓക്കെ